ഞാൻ ഒരിക്കലും അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ വെജ് അങ്ങനെ വലിയ കാര്യമായിട്ട് ഉണ്ടാക്കും എന്നാലും വലിയ തരക്കേടായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോയെന്ന് അറിയില്ല ഒരു പ്രാവശ്യം ഞാൻ പിന്നെ നമ്മൾ അവയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ണം ഒക്കെ നീളത്തിൽ മുറിച്ച് എങ്ങനെയാണ് വെക്കേണ്ടത് അറിയില്ല എന്നിട്ട് യൂട്യൂബ് ഒക്കെ നോക്കി ഇപ്പോൾ യൂട്യൂബ് ഒക്കെയുണ്ട് അന്ന് ഇപ്പോൾ നമ്മളെ കുറിപ്പ് ഒക്കെയായിരിക്കും അല്ലെങ്കിൽ അയൽവക്കത്തെ അമ്മമാരോടൊക്കെയാണ് ചോദിക്കും ഇപ്പോൾ എല്ലാവർക്കും ഫോൺ ഉള്ളതുകൊണ്ട് സുഖമാണ് എല്ലാ പാചക സാധനങ്ങളും പിന്നെ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് പച്ചക്കറി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് വരെ വിശദമായിട്ട് യൂട്യൂബിൽ ഉണ്ട് അപ്പോൾ ഞാൻ അതിൽ നോക്കിയിട്ട് എന്താ പറയുക അതിപ്പോൾ എന്താ പറയുക ഞാൻ എല്ലാ കഷ്ണവും വാങ്ങിച്ചിട്ടു വന്നു അങ്ങനെ ആദ്യം ഒന്നു നോക്കി കണ്ടു നാളെ അവയിൽ വെയ്ക്കാം എന്നുള്ള തൈര് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തൈര് വേണമല്ലോ ഇംപോർട്ടൻ്റ് ആയിട്ട് അപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വന്ന് അതൊക്കെ നീളത്തിൽ ഒക്കെ കട്ട് ചെയ്ത് യൂട്യൂബ് നോക്കും കട്ട് ചെയ്തത് ഒക്കെയല്ലേ പിന്നെ തേങ്ങ ചുരണ്ടി വെച്ച് എത്രയെത്ര അവർ പറഞ്ഞ ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്ത് ഉണ്ടാക്കി കുഴപ്പമില്ലായിരുന്നു അത് വിജയിച്ചു കൊള്ളില്ലയെന്നല്ല നല്ലതായിരുന്നു ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം മാറ്റാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇപ്പോൾ ഞാൻ അവിയൽ സൂപ്പർ ആയിട്ടുണ്ടാകും എവിടെ ചെന്ന് എത്രപേർക്ക് ആയാലും അവിയൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങനെയായിരുന്നു എൻറെ ഉണ്ടാക്കിയിട്ടുള്ള തുടക്കം ആദ്യകാലത്തിലൊക്കെട്ടോ ഞാൻ എന്ത് കാര്യംട്ടോ ഇപ്പോൾ നമ്മൾ ബുക്കിൽ ആണെങ്കിൽ ബുക്കിൽ വായിച്ചു നോക്കും എല്ലാം എടുത്തോ ഓക്കെ എല്ലാമുണ്ട് പിന്നെ വായിച്ചു നോക്കൂ ഇങ്ങനെ തന്നെയല്ലേ എല്ലാം റെഡിയല്ലേ ഇങ്ങനെ തന്നെയല്ലേ ഇത് ചെയ്യേണ്ടേ അതാണ് ഞാൻ ചെയ്തു കൊണ്ട് ഇരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യത്തിലും